ഹലോ ഇത് എയർടെൽ കസ്റ്റമർ കെയർ അല്ലേ ആ സാർ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണമായിരുന്നു ഞാനാണെങ്കിൽ എൻ്റെ ഫോണിൽ ഏർടെല് റീചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗൂഗിൾ പേ വഴിയാണ് ചെയ്തത് പക്ഷേ അതിലൊരു നമ്പർ തെറ്റിയിട്ടാണ് ചെയ്യതത് അപ്പം എനിക്ക് അത് എന്താ ചെയ്യേണ്ടത് അതൊന്ന് മാറ്റി തരുമോ അല്ലെങ്കിൽ പൈസ റിട്ടേൺ കിട്ടാൻ കിട്ടാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ പിന്നെ അതുപോലെത്തന്നെ ഞാൻ റീചാർജ് ചെയ്ത നമ്പറ് ആറ് രണ്ട് മൂന്ന് അഞ്ച് നാല് ഒന്ന് രണ്ട് ഒമ്പത് പൂജ്യം ഒന്ന് ഈ നമ്പർൽത്തേക്കാണ് ഞാൻ ചെയ്തത് അപ്പം ഇനി എന്താ ചെയ്യേണ്ടത് എന്ന് അറിയാൻ വയ്യ അതിനി ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ അങ്ങനെ എന്തെങ്കിലും പരിപാടി ആക്കാൻ പറ്റുവായിരുന്നെങ്കിൽ ഒന്ന് ചെയ്ത് തരാമോ ആ നമ്പര് മാറിയിട്ടാണ് ചെയ്തത് കേട്ടോ അതുകൊണ്ടാണ് എനിക്കറിയാൻ വയ്യായിരുന്നു ആ ഞാൻ ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയ്ക്കാണ് ചാർജ് ചെയ്തത് രു ഒന്നര ജി ബി അങ്ങനെയാണ് ചാർജ് ചെയ്തത് പക്ഷേ അത് തെറ്റിപ്പോയി ഒരു നമ്പര് മാറിപ്പോയി പൂജ്യം ഒന്ന് അടിക്കേണ്ടയിടത്ത് പൂജ്യം രണ്ട് അടിച്ചു അപ്പം അത് തെറ്റിപ്പോയി എന്താ ചെയ്യേണ്ടത് ഓക്കെ ശരി സാർ താങ്ക് യൂ